ഹലോ ആ ചേച്ചി ആ ചേച്ചി ചായക്കടയിൽ നിന്നല്ലേ സംസാരിക്കുന്നത് ആ ചേച്ചി എനിക്ക് ഇച്ചിരി സാധനങ്ങൾ വീട്ടിലേക്ക് അയച്ചു തരാൻ പറ്റുമോ അതോ ഞാൻ അവിടെ വരണോ അല്ലെങ്കിൽ ഞാനവിടെ വരാം ആ ഓക്കെ എന്നാ ചേച്ചി ഉള്ളത് കടയിൽ എന്നാ ഉള്ളത് അതെ അതെ അതെ ആ

ഓക്കെ ചേച്ചി ആ ചേച്ചി ഞങ്ങളുടെ ഒരു കുടുംബ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നേ എനിക്കൊരു ആ ഒരമ്പത് എനിക്കൊരു വൈകിയിട്ട് നാലു മണിക്കത്തേക്ക് വേണ്ടിയിട്ടാണ് വേണ്ടത് ഒരു മൂന്നര ആവുമ്പോൾ എത്തിച്ചാൽ മതി ആ ചേച്ചി എനിക്കൊരു ഒരു അമ്പത് ഏത്തക്ക അപ്പവും ആ ഒരൂ അമ്പത് ഉഴുന്നുവടയും ആ ഒരമ്പത് ചായയും ആ അതിൽ അതിൽ ചേച്ചി എനിക്കൊരു ഒരു പത്തെണ്ണം വിത്തൗട്ട് തരണേ

ആ ഓക്കെ മ്മ് മ്മ് ആ ചേച്ചി പിന്നെ എപ്പോഴാ ആരാ കൊണ്ടുവരുന്നത് ആരെയെങ്കിലും കയ്യിൽ കൊടുത്തു വിടുമല്ലോ അല്ലേ അതോ ഞാനവിടെ വരണോ കൊടുത്തുവിട് ആ ആ ആ ഗ്ലാസ് വേണം ചേച്ചി ഡിസ്പോസിബിൾ ഗ്ലാസും പ്ലേറ്റും വേണേ ആ ആ

തരാമല്ലോ തരാം തരാം തരാം പരിപാടി കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഞാനെത്തിച്ചു തരാമേ ഞാൻ കൊടുത്തു വിടാം ആ തരാം തരാം ശരി മ്മ്

ആണോ ആ ആ ആ ശരി ഏച്ചി മധുരം ഇല്ലാത്തത് നമ്മുടെ ഡയബറ്റിക്കാരൊക്കെ ഉണ്ടാവുമേ അപ്പോൾ അവർക്ക് മധുരമില്ലാത്ത എന്തെങ്കിലും ഇച്ചിരി വേണമായിരുന്നു അപ്പോൾ എന്തോ സമൂസ ഉണ്ടോ ആ ഓക്കേ എന്നാൽ ഒരു പതിനഞ്ച് സമൂസയും കൂടെ വച്ചേരെ ആ അതിന് എത്ര ആവും ഇതെല്ലാം കൂടെ മ്മ് ആ എന്നാലൊരു പെർ പീസ് ആവുമ്പോൾ നിങ്ങളുടെ ഏത്തക്കാ അപ്പത്തിന് എത്രയാണ് പത്ത് രൂപ ആ ശരി ശരി ഓക്കെ ഏച്ചി ഓക്കെ ഏച്ചി എന്നാൽ ഞാൻ ആ ചേച്ചി എന്നാൽ ഞാൻ കൊടുത്തു വിട്ടേര് സമയമാവുമ്പോഴേ

ആ പൈസയുടെ ആ ബില്ലും കൂടെ ഒന്ന് കൊടുത്ത് വിട്ടേക്കണേ ആ തീർച്ചയായിട്ടും ഓർമ്മിപ്പിച്ചേക്കാം ചേച്ചി ആ വഴി വഴി പറഞ്ഞുതരാം ആ ഹാ അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം കേട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്ക് തരാനുണ്ടെങ്കിൽ ഞാൻ ആ നിങ്ങളുടെ കട ഇത്രയും വിപുലമാക്കിയതൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ മ്മ് ഹ്മ്മ് ഹ്മ്മ് ഹ്മ്മ് പറയാം പറയാം പറയാം മ്മ് മ്മ് ശരിയേച്ചി പറയാം പറയാം പറയാം ഓക്കെ ഓക്കെ താങ്ക് യൂ